ആ പറഞ്ഞോളു അതെലോ ഊണുണ്ട് ബിരിയാണി ഉണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ട് ഇത്രയൊക്കെ ഉണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് ചിക്കൻ കറിയുണ്ട് ഫിഷ് ഫ്രൈ ഉണ്ട് അങ്ങനെ സ്പെഷ്യൽ അതൊക്കെയാണ് പൊറോട്ട ഉണ്ട് പൊറോട്ടാ രാവിലത്തത ഇരിക്കുന്നത് ഇപ്പം പിന്നെ ഇപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇനി അടുത്തത് ഉണ്ടാക്കുവാണ് ചൂടോടെ പൊറോട്ടീം ചിക്കനും പൊറോട്ടീം ബീഫും എല്ലാം ഉണ്ട് എന്താണ് വേണ്ടത്

ആ ഇപ്പോൾ എന്തുവാണ് വേണ്ടത് എന്തുവാണ് ഓർഡർ ചെയ്യേണ്ടത് അതെലോ തരാലോ ഇല്ലില്ല പഴയത് ചൂടാക്കത്തൊന്നും ഇല്ല പുതിയത് ഉണ്ടാക്കി തരാം ആളുണ്ട് അന്നേരം തന്നെ ഉണ്ടാക്കി തരാം എത്രണ്ണമാണ് വേണ്ടതെന്ന് ഓർഡർ ചെയ്താൽ മതി ഓക്കെ അഞ്ച് പേർടെ ഊണ് പൊറോട്ടക്ക് എന്താണ് കറി വേണ്ടത് ആ താറാവുണ്ടല്ലോ ആ ഊണിന് സ്പെഷ്യൽ എന്തേലും ഊണിന് സ്പെഷ്യൽ എന്ന് പറയാൻ ആയിട്ട് ബീഫ് ഫ്രൈയുണ്ട് ബീഫ് കറിയുണ്ട് ചിക്കൻ ഫ്രൈയുണ്ട് ചിക്കൻ കറിയുണ്ട് മീൻ ഫ്രൈയുണ്ട് ഏതാണ് വേണ്ടത് പറഞ്ഞാൽ അതനുസരിച്ച് ചെയ്യാം ഉള്ളാകെ മീൻ കറിയുണ്ട് സാമ്പാർ അവിയൽ തോരൻ രസം മോര് തൊടുകറികൾ എന്തേലും അച്ചാറ് അങ്ങനെ അങ്ങനെ കുറെ ഐറ്റംസുണ്ട് കറികൾ അതെ മോരുണ്ട് മോരും സാമ്പാറും ഉണ്ട് ആ ചെമ്മീൻ റോസ്റ്റുണ്ട് ചെമ്മീൻ റോസ്റ്റുണ്ട് കരിമീനുണ്ട് ഓക്കെ എത്ര പേർക്കാണ് അഞ്ച് പേർക്ക് ഓക്കെ ഓക്കെ അങ്ങോട്ട് അതെ ആ ഒരു പ്രാവശ്യം വാങ്ങിക്കുന്നവർ പിന്നെ വാങ്ങിക്കും നമുക്ക് ഓർഡർ തരുന്നതാണ് നിങ്ങൾ ആദ്യമൊന്ന് കഴിച്ച് നോക്ക് എന്നിട്ട് പറഞ്ഞാൽ മതി ആ അങ്ങനെ തരാം എന്നാലല്ലേ പിന്നീം നിങ്ങൾ വരത്തുള്ളു അതുകൊണ്ട് നല്ലതായിട്ട് ഉണ്ടാക്കി തരാം കേട്ടോ ഓക്കെ

ഇല്ല നല്ലതായിട്ട് തന്നെ കൊ തരുന്നതായിരിക്കും പിന്നെ നിങ്ങൾ അങ്ങോട്ട് വരുമോ അതോ ഞങ്ങളിങ്ങോട്ട് ഇങ്ങോട്ട് വരുമോ അതോ ആ ഹോം ടെലിവെറി ഉണ്ട് ഹോം ടെലിവെറി ഉണ്ട് നിങ്ങൾ വീട്ടിലേക്ക് വരാണെങ്കിൽ കടയിലേക്ക് വരാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലെന്ന് ഉണ്ടെങ്കിൽ അവിടേക്ക് കൊണ്ട് വന്ന് തരുന്നതായിരിക്കും ഓക്കെ എങ്ങനാണ് വേണ്ടത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ലൊക്കേഷൻ ഇട്ടാൽ ഞങ്ങൾ അവിടെ കൊണ്ട് എത്തിക്കുന്നതായിരിക്കും ഓക്കെ ഓക്കെ ആ ഓക്കെ ഒരു പ്രാവശ്യം കഴിച്ചിട്ടാണ് നമ്മുടെ അടുത്തിന്ന് വാങ്ങിച്ചത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് സംതൃപ്തമായി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഉണ്ടാക്കി തരുന്നതായിരിക്കും നിങ്ങൾ സാറ്റിസ്ഫ്യട് ആയിരിക്കും അത് ഒ എക്സ്ട്രാ പൈസാ വേണ്ട ഫ്രീ ടെലിവെറിയ ആണ് ഉണ്ട് ഓക്കെ ഓക്കെ എല്ലാം നല്ല വേണ്ട രീതിയിൽ ടെസ്റ്റി ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതായിരിക്കും ഓക്കെ ഓക്കെ കൊടുത്തു വിട്ടേക്കാം ഓക്കെ ബില്ല് എല്ലാം കൂടെ ആയിരത്തി മുന്നൂറ്റി അൻപത് ആ ഗൂഗിൾ പെ ചെയ്താൽ മതി ഒന്നുലെ അല്ലെങ്കിൽ എനിക്ക് ടെലിവെറി ആ ഹോം ടെലിവെറി ആണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പെ ചെയ്തലും മതി ഓക്കെ ആഡ് ചെയ്തേക്കാം ഇപ്പം ചെയ്തേക്കാം ഓക്കെ ഇനി എന്തെങ്കിലും വേണോ മേഡം ഓക്കെ ഓക്കെ താങ്ക് യൂ മേഡം ഓക്കേ